ഹലോ സാർ ഇത് പ്രാദേശിക കാർഷിക വിപുലീകരണ ഓഫീസ് അല്ലേ ആ സാർ ഞാൻ വിളിച്ചതെന്താണെന്ന് വച്ചാൽ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ കൃഷിക്ക് ഒരുപാട് നാശ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അതിനായി ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള കാര്യത്തിനായിരുന്നു അപ്പം വിള ഇൻഷുറൻസ് ക്ലെയിം ഫയൽ ചെയ്യാനായുള്ള മാർഗ്ഗ നിർദേശങ്ങൾക്ക് ആയിരുന്നു അപ്പം എന്തൊക്കെ ഡോക്യൂമെൻസാണ് അതിന് വേണ്ടത് ആ ഓക്കെ സാർ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ആ ഓക്കെ അല്ലേ ആ ഈ മാസം ഇരുപതിന് അല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ